മലയാള ഭാഷ എന്നത് മലയാളികളുടെ സംസ്കാരം കൂടിയാണ് ഓരോ ഭാഷയും ഓരോ ഓരോ വ്യക്തിയുടെയും സംസ്കാരത്തെ സൂചിപ്പിക്കും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മലയാളികൾ അവരുടെ സ്വത്വം സ്വത്വബോധവും പ്രകടിപ്പിക്കാൻ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാൽ അവരുടെ ഏതൊരു രാജ്യത്ത് പോയാലും ഏതൊരു സ്ഥലത്താണ് മലയാളികൾ മലയാളികളുടെ സംസ്കാരം വിട്ടു നിൽക്കുന്നില്ല അവർ അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും തന്നെ നിലകൊള്ളുന്നു അവരുടെ ഇപ്പോൾ ഏതൊരു ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജുകളിൽ ആണെങ്കിലും പൊതുസ്ഥലത് ആണെങ്കിലും അവർ അവരുടെ ഭാഷയിൽ അല്ലാതെ വേറൊരു ഭാഷയിലും സംസാരിക്കുന്നില്ല അവരുടെ സംസ്കാരം കൂടിയാണത് അപ്പോൾ ഇന്ന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മലയാളികൾ അവരുടെ സംസ്കാരവും അതുപോലെ ഭാഷയും മുറുകെ പിടിച്ചിരുന്നു എന്നിരുന്നാലും ഇന്ന് ഇന്ന് ദിവസം അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുന്തോറും മാറ്റങ്ങൾ വരികയാണ് എല്ലാവരുടേയും ഇടയിൽ അവർ മറ്റു ഭാഷയിലേക്കാണ് പ്രാധാന്യം നൽകുന്നതും മറ്റു ഭാഷകളിലേക്ക് അവർ ചേക്കേറിക്കൊണ്ടേ ഇരിക്കുന്നു സ്കൂളിലൊക്കെ മലയാളഭാഷ എന്നത് ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദി ഭാഷയും മാറി മാറി പോയിരിക്കുന്നു ഇപ്പം മലയാളം എന്നത് അവരുടെ ഇപ്പോൾ മലയാളം പറയുന്നത് അവരുടെ സംസ്കാരത്തിന് കുറച്ചിലായിട്ടും ചിലർ കാണുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മലയാളി കുട്ടികൾ തന്നെ അവർക്ക് മലയാളം പറയുന്നതേ കുറച്ചിലാണ് എന്നാൽ ചിലർ ഇന്നും അതു മുറുകെ പിടിച്ച് നിലകൊള്ളുന്നു അവർ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാലും ഏതൊരു ഏതൊരു സ്ഥലത്ത് പോയാലും മലയാളഭാഷയെ വിട്ടു നിൽക്കുന്നില്ല അത് ചില ചിലരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റു ചിലർ മലയാളഭാഷയെ മുറുകെ പിടിക്കും മറ്റു ചിലർ പരിഷ്ക്കാരത്തെ തേടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നും